എനിക്ക് നെയ്ത്തും തുന്നലും പണ്ട് തൊട്ടേ ഇഷ്ടമാണ് തന്നെയല്ല ഈ നെയ്ത്ത് തുന്നലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇത് വസ്ത്രത്തെ സംബന്ധിച്ചാണോ അതയോ പരമ്പ് അതുപോലെത്തന്നെ ഈറ്റാമുളയൊക്കെ വെച്ചിട്ട് നമ്മൾ നെയ്യില്ലേ അതാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഏതായാലും രണ്ട് കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം നെയ്ത്തിനും തുന്നലിനകത്തും പണ്ട് മുതലേ എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് നെയ്ത്തും തുന്നലും തുന്നൽ സാധാരണ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ വസ്ത്രങ്ങൾ കീറി പോകുമ്പോഴ് നമ്മൾ തുന്നൽ നടത്താറുണ്ട് കാര്യം അത് നമ്മൾ കടകളിൽ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് പെർഫെക്ഷനോട് കൂടി ചെയ്ത് തരണമെന്ന് നിർബന്ധമില്ല കാര്യം ചെറിയ വർക്കുകൾ കടകളിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ അങ്ങനെ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ അത് നെയ്ത്തിൽ അല്ല തുന്നൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം അതാണ് പിന്നെ നെയ്ത്ത് എന്ന് പറയുന്നത് പരമ്പ് അതുപോലെത്തന്നെ കൊട്ട വട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നെയ്തെടുക്കുന്നുണ്ട് അതിൽ ചെറിയ ഈ ഇഴകളൊക്കെ വിട്ടുപോയിക്കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ നെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കാറുണ്ട്